രണ്ട് പത്ത് രണ്ടായിരത്തി പത്ത് എട്ട് ആറ് രണ്ടായിരത്തി നാല് ഇരുപത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഒൻപത് ഏഴ് ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് മൂന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട്